ഞാൻ ഒരു മൊബൈൽ ഫോണായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് എന്താ പറയുക ഐഫോൺ ആയിരുന്നു അറുപതിനായിരം രൂപയിൻ്റെ ഐഫോൺ ആയിരുന്നു നല്ല ക്ലാരിറ്റി ഞാൻ കാമറയിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ക്ലാരിറ്റി ഞാന് ഭയങ്കര ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന നല്ലൊരു ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും രൂപ കൊടുത്ത് നമ്മൾ ഒരു ഐഫോൺ വാങ്ങുമ്പോൾ അതിനുള്ള ഒരു ഇത് ഉണ്ടാകും എന്ന് പക്ഷെ എനിക്ക് ആ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടപ്പോൾ സൂപ്പറാണ് അതേപോലെ തന്നെ ആപ്പുകൾ ഒക്കെ വേഗം വേഗം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് ചാർജ് കുറെ നേരം നിൽക്കുന്നുണ്ട് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമായി ഫോൺ